എനിക്ക് ചെറുപ്പം മുതലേ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ വച്ചാണ് ഫുഡ് ആദ്യമായിട്ടുണ്ടാക്കി തുടങ്ങുന്നത് ഞാൻ കൂട്തലും എൻ്റെ ചേച്ചിമാരോട് ഒക്കെയാണ് ഫോൺ വിളിച്ച് ചോദിക്കാറുള്ളത് ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്ത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാറുള്ളത് പിന്നെ അടുത്ത് അമ്മയുണ്ടാവും എന്നാലും ചേച്ചിമാര്ണ്ടാക്കണ സാധനങ്ങളക്കെ കണ്ടിട്ട് അത് ട്രൈ ചെയ്യാനുള്ള ഒരു ആകാംഷ കൊണ്ടാണ് ഞാൻ കൂടുതലും അവരെ വിളിച്ച് ഞാൻ ചോദിക്കാറുള്ളത് പിന്നെ ഒറാശ്യം ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കൈഞ്ഞപ്പം മഞ്ഞപ്പൊടി കൂടിപ്പോയെന്ന് പറഞ്ഞെ് എല്ലാവരും തമാശയ്ക്ക് കളിയാക്കുക ഒക്കെ ചെയ്തൂ അതൊക്കെ ഭയങ്കര സില്ലി കേസായിട്ട് എടുത്തു പിന്നീട് വല്തായി കൈഞ്ഞ് കൈഞ്ഞപ്പം ഞാൻ ഓരോ ഓരോ ഫുഡ്ഡുകളൊക്കെ ഉണ്ടാക്കും കട്ട്ലേറ്റ് ബർഗറ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങി അതൊക്കെ എന്ന് ഞാൻ ചേച്ചിമാരെ വിളിച്ച് ചോദിക്കും പിന്നീട് എനിക്ക് ഫോണൊക്കെ മേടിച്ചതിന് ശേഷം കൂടുതൽ യൂറ്റൂബ്കളിലൊക്കെ കണ്ട് ഫോണിൽ നോക്കി ഓരോന്നൊക്കെ ട്രൈ ചെയ്തൊക്കെയാണ് ശരിയായി വരുന്നത് ചില സമയത്ത് ഫ്ലോപ്പായി പോകും എന്നാലും ഞാൻ ചെയ്യണതൊക്കെ മിക്കപ്പോഴും ശരിയാവാറുണ്ട് എല്ലാവർക്കും അതൊക്കെ ഇഷ്ടപ്പെടാറുമുണ്ട് ചിലതിനൊക്കെ ഉപ്പ് കൂടി എരിവ് കൂടി അങ്ങനത്തെക്കെയുള്ള പ്രശ്നങ്ങളും വരാറൊക്കെയുണ്ട് പിന്നേ ഫോണുളിലാവുമ്പോൾ നമുക്ക് വെറൈറ്റി സാധങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ സമയത്തായി കൈഞ്ഞപ്പ നമ്മുടെ പാരൻസ് എല്ലാവരും അടുത്തൊക്കെയുള്ളത് കാരണം നമത് ടേയ്സ്റ് ചെയ്യാനും ഒരോന്നൊക്കെ ചോദിച്ച് ചെയ്യാനക്കെയായ്ട്ട് നമ്മുടെ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടാവൂലോ അടുത്ത് അപ്പം നമ്മൾ അതിനനുസരിച്ച് അവരോട് ചോദിച്ച് എല്ലാം ചെയ്തൊക്കെ വരുമ്പൊൾ ടെയ്സ്റ്റ് ആക്കും അടുത്ത് അയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യുമ്പം അത് അത്രയും വേണ്ട എന്നൊക്കെ അവർ പറഞ്ഞ് തരുമ്പോൾ നമുക്ക് അതിന് അനുസരിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം നമുക്ക് ഒന്നും ചിലപ്പേങ്കി ഉപ്പ് കൂടുകയും എരിവ് കുറയും അങ്ങനൊക്കെ ചെയ്യുമ്പം അതിൻറ്റേതായ ടേയ്സ്റ്റ് കുറവൊക്കെ ഉണ്ടാവൂലോ യൂട്യുബ് വച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും അങ്ങട്ട് ശെരിയാവൂല നമ്മടെ അമ്മമാർ പറഞ്ഞത് പോലെ തന്നെ പോലെ ഒന്നും ആയിരിക്കില്ലല്ലൊ അങ്ങനെ ഒക്കെയാണ് നമ്മൾ ഇപ്പം ഞാൻ പണ്ടൊക്കെ ഫുഡ്ഡുണ്ടാക്കി കൊണ്ടിരുന്നത്